ഹലോ മലബാർ ഹോട്ടൽ അല്ലേ ഓക്കെ ഒക്കെ ചപ്പാത്തി രണ്ടെണ്ണം വേണമായിരുന്നു അതുപോലെത്തന്നെ നാനും മൂന്നെണ്ണം വേണമായിരുന്നു അയ്യോ ചപ്പാത്തി മൂന്നെണ്ണം ആക്കിക്കോളൂ നാനും അഞ്ചെണ്ണം ആക്കിക്കോളൂ അതിനുള്ള കറികൾ എന്തൊക്കെയാണുള്ളത് ഹോം ഡെലിവറി ചെയ്യുമോ ഓക്കെ ഗ്രീൻപീസ് എടുത്തോളൂ കറി ചാപ്പാത്തിക്ക്

ഹോം ഡെലിവറി ചെയ്യുമോ ഹൌസ് മാനന്തവാടി തോണിച്ചാലാണ് ഷാർപ്പ് അഞ്ചു മണിക്ക് കിട്ടണം ഓക്കെ ആണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഒന്നു പറയുമോ ഓക്കെ എങ്കിൽ ചോദിച്ചിട്ട് പറയൂ ആ ആ ആ ഷാർപ്പ് അഞ്ചു മണിക്ക് മാനന്തവാടി തോണിച്ചാൽ ആ ആ